ഹലോ സ്റ്റേഷണറി ഷോപ്പിലേക്ക് സ്വാഗതം എന്താണ് വേണ്ടത് മേം കാല്ക്കുലേറ്ററ് ഏത് കാല്ക്കുലേറ്ററാ വേണ്ടത് സൈന്റിഫിക്ക് ആണോ കസ്സിയോടേത് ഉണ്ട് നമുക്ക് നല്ലത് എല്ലാവരും വാങ്ങിക്കുന്നത് അതാണ് കാസ്സിയോടെ കാല്ക്കുലേറ്ററിന് ഒരു ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയെക്കെ ആവും നല്ല കാല്ക്കുലേറ്റർ ആണ് നമുക്ക് വര്ത്ത് ആണ് വാങ്ങിച്ചാൽ അത് ഇരുന്നോളും ഇപ്പത്തെ കുട്ടികള്ക്കെ കുട്ടികള്ക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങളും സ്കൊയറും ക്യൂബും ഒക്കെ നമ്മക്ക് നോക്കാം അപ്പം സൈന്റിഫിക്ക് ആണ് നല്ലത് അത് ഏകദേശം നൂറ്റി ഒമ്പത് മൂന്നൂറ് രൂപയ്ക്ക് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ എന്ത് പറഞ്ഞ് ബ്രൗണ് പേപ്പറോ ആഹ് ബ്രൗണ് പേപ്പര് പൊതിയാനായിട്ട് ആഹ് അതെ അതെ ബ്രൗണ് പേപ്പറ് ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് അത് അവൈലബിള് ആണ് അതിനൊരു ഒരു അമ്പത് രൂപ ഷീറ്റിന് വെച്ചാണ് പോവുന്നത് അമ്പത് രൂപ തീര്ച്ചയായിട്ടും ഉണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ വീതി കൂടിയതിന് അറുപത് രൂപ വരും അറുപത് രൂപ ഇതിൽ ഒരു ഒരു റോള് അങ്ങനെയാണ് നമ്മൾ പോവുന്നത് എവിടെയാണ് ഞങ്ങൾ അവിടേക്ക് ഹോം ഡെലിവറി നമുക്കുണ്ട് കേട്ടോ ആഹ് ആഹ് മേം കാര്ട്ടൂണ് ലേബെൽ ഉണ്ട് കുറേ കാര്ട്ടൂണ് ലേബലും കൂടെ വേണം അല്ലെങ്കിൽ ആഹ് അതുംകൂടെ തരാം അതിനൊരു മുപ്പത്തഞ്ച് രൂപ വരും ആഹ് അതെ അതെ അതെ അതെ ലേബൽ ഉണ്ട് അതെ അതെ ഗൂഗിള് പേ ചെയ്താൽ മതി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കില് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ഓപ്ഷന് പ്രശ്നം ഇല്ല നമ്മുടെ ഇപ്പം ഈ കശിയോടെ ഒരു കാല്ക്കുലേറ്റർ ആണ് പൊതുവേ നല്ലത് പിന്നെ പല പല കമ്പനികളുടെ കാല്ക്കുലേറ്റർ ഉണ്ട് എന്നാലും നല്ല കമ്പനി എല്ലാവരും വാങ്ങിക്കുന്നത് ഇതാണ് സൈന്റിഫിക് കാല്ക്കുലേറ്റർ ആവുമ്പം സ്കൊയറും ക്യൂബും ആഹ് അതുതന്നെ അതെ നമുക്ക് തന്നെ സ്കൊയറും ക്യൂബും ഒക്കെ നോക്കാമല്ലോ അപ്പം പിന്നെ നമുക്ക് റൂട്ട് ഒക്കെ കാണാനെക്കെ എളുപ്പം ആയത് കൊണ്ട് പിന്നെ കാളേജില് സ്കൂള് കുട്ടികള്ക്കൊന്നും പറ്റില്ല നമുക്ക് സ്കൂളിലൊന്നും കേറ്റത്തില്ല എന്നാലും ഇത് ഇപ്പം നിങ്ങൾക്ക് ആയിരിക്കും അല്ലെ ആഹ് അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ അത് രണ്ടെണ്ണം ആഹ് അതെ നമുക്ക് രണ്ട് ഓക്കെ ഇതിനെല്ലാം കൂടെ മേം പൈമെന്റ് വരുന്നത് കാശ്യോടെ ഒരു മുന്നൂറ് രൂപയാവും പിന്നെ ബ്രൗണ് പേപ്പറ് രണ്ടെണ്ണം അല്ലേ അപ്പം നൂറ് രൂപയാവും പിന്നെ ലേബല്നൊരു അമ്പത് രൂപ അപ്പം ഇരുനൂറ് മുന്നൂറും പത്തും നാനൂറ് നാനൂറ്റമ്പത് രൂപയാണ് ഇതിപ്പം ആവുന്നത് മൊത്തത്തിൽ പേയ്മെന്റ് ഗൂഗിള് പേ ആഹ് ആഹ് ഇല്ല മേം മേമിന്റെ വീട് എവിടെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ അകത്ത് ആണെങ്കിൽ നമുക്കെ പത്തനംതിട്ട ജില്ലയില് അല്ലേ ആഹ് ഓക്കെ പത്തനംതിട്ടയിൽ മല്ലപ്പള്ളി ആനിക്കാട് ആഹ് അതെ അതെ അവിടെ നമുക്ക് ഉണ്ട് നമ്മൾ ഇവിടെ മല്ലപ്പള്ളിയിൽനിന്ന് ആണല്ലോ നമ്മക്ക് അത് റോഡ് വരെ വരുന്നതിനൊരു വലിയ പേയ്മെന്റ് ആവുന്നില്ല നമ്മൾ ഈയൊരു പൈസക്ക് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ട് തരും ആഹ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കു കേട്ടോ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് അത്രെ ഉള്ളൂ പിന്നെ തീര്ച്ചയായിട്ടും ആഹ് ഓക്കെ ഓക്കെ താങ്ക് യൂ